മീൻപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോഴത്തെക്കാണെങ്കിൽ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ഇപ്പോൾ കുട്ടനാട് ഏരിയ ആയതുകൊണ്ട്തന്നെ ഇവിടെ ഒത്തിരി സാധ്യതകൾ ഉണ്ട് മീൻപിടിക്കാൻ ഇപ്പോൾ തോട്ടിലാണെങ്കിലും നന്നായിട്ട് മീൻപിടിക്കാൻ നമുക്ക് സാധ്യതകളുണ്ട് അപ്പം കുടുതലും ആൾക്കാർ പിടിക്കുന്ന രീതിയെന്ന് വെച്ചാൽ നമ്മൾ ചോറിട്ടുകൊടുത്ത് വലയിട്ട് പിടിക്കുന്നതാണ് കൂടുതൽ അപ്പം ഇവിടോട്ട് നമ്മൾ മീൻ വീശിയെടുക്കുന്ന വലയില്ലേ ആ വലിയ വല ആ വലകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും ഇവിടെ മീൻപിടിക്കുന്നത് അപ്പം മീൻപിടുത്തത്തെ ബന്ധപ്പെട്ട് മീൻപിടുത്തമാണൊരു വരുമാനമാർഗ്ഗമായിട്ടുള്ളവർ കൂടുതൽ ഇത് ചെയ്യും പിന്നെ നമ്മൾ പിന്നെ കുറേ ഇപ്പോൾ വെള്ളമൊക്കെ പൊങ്ങിവരുന്ന സമയത്താണെങ്കിൽ തോർത്തില്ലേ തോർത്തിൽ തോർത്തിൽ ചോറിട്ടിട്ട് മീൻപിടിക്കും അപ്പം

കുടം പഴയ മൺകുടങ്ങളിൽ ഒരു തോർത്തൊക്കെ കെട്ടി അതിൻ്റെ തോർത്തിനൊരു ഊട്ടയുണ്ടാക്കിക്കൊടുത്ത് ആ ഊട്ടയുടെ ആ ഭാഗത്ത് കുറച്ച് മാവൊക്കെ തേച്ചിട്ടുവേണം അപ്പോൾ കൊത്താൻ വരുന്ന മീൻ ഫുഡ് കണ്ടുകൊണ്ട് കൊത്താൻവരുന്ന മീൻ അതിനകത്തോട്ട് കയറിചെല്ലുമ്പോൾ ആ ഫുഡ് ആ ഫുഡ് പാർട്ടികൾസ് അകത്തോട്ട് പോകും അപ്പോഴത്തേക്കും ഈ മീൻ അകത്തോട്ടുപോകും തിരിച്ചത് പുറത്തോട്ട് വരത്തില്ല അങ്ങനെയാണ് പറയാറുള്ളത് പിന്നെ മീനിൻ്റെ സാധ്യത എന്നു വെച്ചുകഴിഞ്ഞാൽ ഒടക്കുവലയിട്ട് വള്ളത്തിൽ പോകുന്നവർ ഇങ്ങനെ ഒടക്കുവലയിട്ടുകൊടുത്ത് ഇങ്ങനെ വള്ളത്തിൽനിന്ന് ഇങ്ങനെ തട്ടുമ്പഴത്തേക്കും ആ ഒടക്കുവലയിലോട്ട് മീൻ കയറും അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ചൂണ്ടയിടുമ്പോൾ മീനായിട്ടും മണ്ണിരയാണ് കൊടുക്കുന്നത് ഇന്ന് ഇപ്പോൾ ഇന്ന് മണ്ണിരയെ കാണാൻ മണ്ണിര വിരളമായിക്കൊണ്ടിരിക്കുകയാ മണ്ണിരയെ കാണാനേ ഇല്ല അപ്പം ആ മണ്ണിരയെ നമ്മൾ ഇട്ടുകൊടുത്തിട്ടാണ് പിടിക്കുന്നത് വെച്ചാൽ മണ്ണിരയിൽ നമ്മൾ ഇപ്പോൾ നല്ല മണ്ണ് ഇങ്ങനെ ഏത് നല്ല വളക്കൂറുള്ള മണ്ണിലും മണ്ണിര ഉണ്ടാവുന്നതാണല്ലോ അപ്പോൾ നമ്മൾ മണ്ണ് ഇങ്ങനെ മാന്തുമ്പഴത്തേക്കും ആ സ്ഥലത്ത് നോക്കുമ്പോൾ അവിടെ മണ്ണിര ഇഷ്ടംപോലെ ഉണ്ട് പക്ഷെ ഇന്ന് അതില്ല അന്നൊക്കെ നമ്മൾ മണ്ണിര എടുത്ത് അത് കൊളുത്തി ഇങ്ങനെ ചൂണ്ടയിടും പിന്നെ പറയാനാണെങ്കിൽ തുമ്പി ഓരോ മീനിനും ഓരോ നെക്സ്റ്റ് ഇപ്പോൾ വെട്ടിൽ വരാലിനിപ്പോൾ വെട്ടിലോ അല്ലെങ്കിൽ പാറ്റ അങ്ങനെയൊക്കെയുള്ള ഓരോ മീനുകൾക്ക് ഓരോ രീതികളുണ്ട് അപ്പോൾ എല്ലാ വെട്ടേലും നമുക്ക് എല്ലാ മീനും കിട്ടണം എന്നില്ല കരിമീനിനെയൊക്കെ പിടിക്കാനാണെങ്കിലും ചില സാധനങ്ങളൊക്കെ ഇട്ടുകൊടുത്താലേ അത് കിട്ടത്തുള്ളൂ അത് നമുക്ക് ചിലർക്കൊക്ക വലവീശുകാർക്കൊക്ക വലിയ മീനുകളെയൊക്കെ കിട്ടും പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ

ഫുഡ് എടുക്കാനായിട്ട് കൊറേ മീനുകൾ ആ സൈഡിൽത്തന്നെ കാണും എപ്പോഴും ഫുഡ് കിട്ടും എന്ന് അവർക്കറിയാം അപ്പോൾ അവർ ആ ഫുഡും തേടി അവിടെ വരുമ്പഴത്തേക്ക് അവിടെ ഒന്നും കുറേ മീനിനെയൊക്കെ പിടിക്കാൻ പറ്റും പിന്നെ ചിലർക്ക് വെട്ടിലിനെ ഇട്ട് പിടിക്കും അങ്ങനെ പല രീതിയിൽ നമുക്ക് മീനിനെ പിടിക്കാൻ പറ്റും